ഹലോ ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകണത് കൃഷിയിലെ യന്ത്രവൽക്കരണം കേരളത്തിൽ എത്രത്തോളമുണ്ടെന്നുള്ളതാണ് സത്യത്തിൽ പറഞ്ഞു കയിഞ്ഞു കയിഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യന്ത്രവൽക്കരണങ്ങളില്ല കർഷകർ സ്വയം മണ്ണിലേക്ക് ഇറങ്ങി വിളവെടുക്കുന്നതാണ് സ്വയം മണ്ണിലേക്ക് ഇറങ്ങി വിത്ത് വിതറി വിളവെടുക്കുന്നതാണ് പണ്ടത്തെ കൃഷിയെന്ന് പറയണത് പക്ഷേ ഇന്നത്തെ കേരളത്തിലെ കൃഷിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ യന്ത്രവൽക്കരണങ്ങളാണ് അതായത് പവർ ട്രില്ലറായിട്ടും പിന്നെ വിളവെടുക്കുന്നവരോട് വിത്ത് ചെയ്യുന്നതിന് വിളവെടുക്കുന്നവരോട് വിത്ത് ചെയ്യുന്ന ഡ്രിപ്പ് ചെയ്യുന്ന ഉപകരണങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും കൃഷിയിൽ ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്നത് പണ്ടുകാലങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം കർഷകർ ഇറങ്ങി മണ്ണിലേക്ക് കർഷകർ ഇറങ്ങി അവർ സ്വയം വിത്ത് പതറി വിളവെടുക്കുന്നതാണ് പക്ഷേ ഇന്നത്തെക്കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക യന്ത്രവൽക്കരണമാണ് അപ്പോൾ കർഷകരുടെ അധ്വാനമാണ് ഇല്ലാണ്ടാവുക പോകുന്നത് കൂടുതലായിട്ടും കർഷകരുടെ കാര്യക്ഷമതയേയും അധ്വാനമില്ലാതാക്കുകയാണ് ഇന്നത്തെ കേരളത്തിലെ കൃഷിയിലെ യന്ത്രവൽക്കരണംകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ അതുമാത്രമല്ല ഇന്നത്തെ ഇന്നത്തെ ആ യന്ത്രവൽക്കരണം കാരണം ഇന്നത്തെ കൃഷി പലതും നശിച്ചാണ് പോകുന്നത് ഒരു ഫലമില്ല നമുക്ക് എന്താണ് ആസ്വദിച്ചിട്ടുള്ളൊരു ഫുഡ് കഴിക്കാമെന്നുള്ളത് കൃഷിയെടുത്തിട്ട് അതിൽ നിന്ന് കഴിക്കാമെന്നുള്ളത്

കൃഷി ചെയ്യുന്നതുകൊണ്ടാണ് ഇന്ന് കൂടുതൽ ആളുകൾക്കും അസുഖങ്ങൾ വരുന്നത് പണ്ടു കാലങ്ങളിലങ്ങനെയല്ലായിരുന്നു കർഷകർ തന്നെ മണ്ണിലേക്ക് ഇറങ്ങി അവർ സ്വയം കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് അവർക്ക് കൂടുതലായിട്ട് അസുഖങ്ങളൊന്നും വരുന്നില്ല പണ്ടു കാലങ്ങളിൽ ഒട്ടുമേ അസുഖങ്ങളില്ല ഇന്ന് തൊടുന്നതിനും പിടിക്കുന്നതിനും പിടിക്കുന്നതിനൊക്കെ അപ്പപ്പോൾ എന്താണ് അസുഖങ്ങളാണ് വരുന്നത് അപ്പോൾ അതൊരു ഫലപ്രദമായിട്ട് എനിക്ക് കാണാൻ കഴിയില്ല അതിനോട് യോജിക്കാനും കഴിയില്ല കാരണം മെഷിനറി ടൂൾസ് വച്ചിട്ടൊക്കെ കൃഷി ചെയ്യുക എന്നുള്ളത് എന്നാണ് വളരെ ഫലപ്രദമായിട്ടുള്ളൊരു കാര്യമല്ല അതിനോട് യോജിക്കാൻ പറ്റില്ല കർഷകർ തന്നെ മണ്ണിലേക്ക് ഇറങ്ങി സ്വയം കൃഷി ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളൊരു കാര്യം എന്നു പറയണത് കാരണം വേറെയൊന്നുംകൊണ്ടല്ല അസുഖങ്ങളുണ്ടാവില്ല നമുക്ക് നല്ലതുപോലെ നല്ല ആരോഗ്യമുണ്ടാകും നല്ല നല്ല ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റും അതുപോലെ നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും സംരക്ഷിക്കാനായിട്ട് സാധിക്കും പക്ഷെ ഇന്ന് കൃഷിയിൽ യന്ത്രവൽക്കരണം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ആസ്വദിച്ച് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല അതുപോലെ നമ്മുടെ ആരോഗ്യം നശിച്ചു പോകുകയെയുള്ളൂ നമ്മൾ ഒരുവിധം പ്രായം എത്തിക്കഴിയുമ്പോഴേക്കും നമ്മുടെ ആരോഗ്യം നശിച്ചു നശിച്ചു പോകണത് കാരണം ഈ കൃഷിയിലെ യന്ത്രവൽക്കരണം തന്നെയാണ് അതിന് മെയിനായിട്ടുള്ള കാരണം അതുകൊണ്ട് കൃഷിയിലെ യന്ത്രവൽക്കരണം എന്നു പറയണത് ഒട്ടും ഫലപ്രദമായിട്ടുള്ളൊരു കാര്യമല്ല